എടാ എനിക്ക് ഫ്രാൻസിലേക്ക് പോവാനുള്ള പാസ്പോർട്ട് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് നീ കഴിഞ്ഞ ദിവസം അവിടെ കൊടുത്തതൊക്കെ ശരിയായാരുന്നോ നമുക്ക് ഒരുമിച്ച് പോവാമായിരുന്നു എടാ അവിടെ പോയിട്ട് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് അവിടെ പോയി സ്ഥങ്ങളൊക്കെ കാണുന്ന ആ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞുതരാമോ ഞാൻ പാസ്പോർട്ട് ഓഫീസിൽ ചെന്നപ്പോൾ അവിടുത്തെ ഓഫീസർ പറഞ്ഞത് അടുത്ത ദിവസം ഒന്നും കൂടെ വരണം എന്നാണ് അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാനൊക്കെ ആയിട്ടാണ് ഞാൻ നിന്നെ ഇപ്പോൾ വിളിക്കുന്നത് പിന്നെ അവിടെ പോയി സ്ഥലങ്ങളൊക്കെ കാണാനും അങ്ങനെയുള്ള ഡ്രീം ഒക്കെ നമുക്ക് ഇപ്രാവശ്യം സെറ്റ് ആവണം നീയും കൂടെ വന്നിട്ട് വേണം സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി സ്ഥലങ്ങൾ കാണാനും അവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനും ഒക്കെയായിട്ടാണ് പക്ഷേ പാസ്പോർട്ട് പുതുക്കലിനായിട്ട് ഞാൻ ആ പാസ്പോർട്ട് സേവാകന്ദ്രത്തിൽ അപ്പോയിൻറ്മെൻ്റ് ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് പറ്റുന്നില്ല നീ അതൊന്ന് സെറ്റ് ആക്കിത്തരാൻ പറ്റുമോ ഒന്ന് ശരിയാക്കി തരുവാണെങ്കിൽ ഉപകാരമാണ് പിന്നെ നിനക്ക് എന്തെങ്കിലും സഹായം വേണേൽ നീ ചോദിച്ചാൽ മതി ഞാനും റെഡി ആക്കിത്തരാം പിന്നെ ഞാൻ ആ ഏജൻസി ആയിട്ടൊക്കെ ബന്ധപ്പെട്ടപ്പോൾ അവർ കുറേ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതന്നിരുന്നു നിനക്ക് ഞാനത് വാട്സപ്പിൽ അയച്ചേക്കാം നിനക്ക് എന്തെങ്കിലും ഒക്കെ ഉപകാരം ഉണ്ടാവും പിന്നെ എന്തെങ്കിലും ഇതൊക്കെ പറഞ്ഞാൽ ഞാൻ സെറ്റ് ആക്കി തരുന്നതായിരിക്കും